ആ അങ്ങനെ ഞാൻ ഒറ്റക്കായിട്ട് ഇതുവരെ ട്രിപ്പ് പോയിട്ടില്ല എൻ്റെ രണ്ട് വട്ടം ഞാൻ ആക്സിഡൻറ്റായി കഴിഞ്ഞിട്ട് പോകാറുള്ളത് അങ്ങനെ കുറെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യണ്ടതും ആ അങ്ങനെ ഇപ്പം നമ്മള് കുറെ ആൾക്കാരെ പരിചയപ്പെടാനും അതിലൂടെ കുറെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റയിൻ ചെയ്തെടുക്കാനും കുറെ ആൾക്കാരെ കണ്ട് മുട്ടാനോക്കെ നല്ലൊരു ഓപ്പർച്യുണിറ്റിയാണ് നമുക്കെങ്ങനെ കിട്ടാതെ മിക്കപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സുവായിട്ട് എല്ലാവരും ആയിട്ട് ഒന്നിച്ച് പോകുന്നത് തന്നെയാണ് സോളോ റൈഡിനെക്കാളും ഇഷ്ടം അതാകുമ്പത്തേക്ക് നല്ലൊരു വൈബായിരിക്കും നല്ലൊരു റിഫ്രഷ്മെൻറ്റായിരിക്കും നമുക്ക് നമ്മള് മെൻറ്റലി സാറ്റിസ്ഫൈഡായിരിക്കും കാരണം എല്ലാരുവായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു വൈബ് കിട്ടുന്നൊരു ഹാപ്പിനെസ്സ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തതാണ് പിന്നെ എല്ലാരുവായിട്ട് വച്ച് പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ കിട്ടുന്നൊരവസരം അങ്ങനെക്കെ നല്ലൊരു എക്സ്പീരിയൻസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാലും എന്തുകൊണ്ടും ബെറ്ററ് നമ്മള് ഗ്രൂപ്പായിട്ട് ട്രാവല് ചെയ്യുന്നതാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഞങ്ങള് പോകുന്ന വഴിക്ക് അങ്ങനെ കുറെ റൈഡേഴ്സുമാരേയും അങ്ങനെ കുറെ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരേയും കണ്ട് മുട്ടിയിട്ടുണ്ട് കൂടെ സംസാരിച്ചിട്ടുണ്ട് ഒന്നിച്ച് കോഫിയൊക്കെ കുടിച്ചിട്ടിട്ടുണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്